ഗുഡ് മോർണിംഗ് അതേ അല്ലോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കേ ഓക്കേ എവിടെക്കാണ് വരണ്ടത് ഹോസ്പിറ്റലിൽ അപ്പം ഓക്കേ എത്രയായവും ഇത് ചെയ്യുന്നതിനു റേറ്റ് ഓക്കേ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് വരേണ്ടതുണ്ടോ ഓക്കേ ഇത് റിപ്പോർട്ട് എപ്പത്തന്നെ കിട്ടും അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഡോക്ടറെ കോൺസൾട്ട് ചെയ്യാമല്ലോ അപ്പോൾ ഓക്കേ നാളെ ഞാൻ പത്തുമണി ആവുമ്പത്തേക്കും വന്നാൽ മതി അല്ലെ ഓക്കേ